അതെ ഇതാരാണ് നമ്മൾ കറക്റ്റ് കടയ്ക്കല് കടയ്ക്കല് ബസ് സ്റ്റാന്റിനടുത്താണ് നമ്മുടെ സ്പോട്ട്

എല്ലാം പുതിയ മോഡല്സ് എല്ലാം അവൈലബിൾ ആണ് മാം ഏതാണ് നിങ്ങൾക്ക് താല്പര്യം മ് മ് നോക്കാന് ഓഫർ ഒക്കെ ഉണ്ട് മാം ഇ എം ഐ ഉണ്ട് എല്ലാം ഉണ്ട് നമുക്ക് വളരെ അഫോഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് മാം എല്ലാം പതിനേഴ് പതിനേഴിനൊക്കെ നമുക്ക് നല്ല മൊബൈലുകളൊക്കെ കിട്ടുന്നുണ്ട് ഉം നെറ്റ്വർക്ക് ഒക്കെ നമുക്ക് ഫൈവ് ജീ യാണ് കുഴപ്പം ഇല്ല എല്ലാം നല്ലതാണ് നല്ല ഫീച്ചേസ് ആണ് എല്ലാത്തിലും നല്ല ക്ലാരിറ്റിയൊക്കെയുള്ള കമ്പിനി ഓപ്പോയുണ്ട് പിന്നെ റെഡ്മീ റിയല്മീ പിന്നെ എല്ലാം ഉണ്ട് മാം സാംസങ്ങ് ഉണ്ട് എല്ലാം ഉണ്ട് പുതിയ മോഡല്സ്സ് എല്ലാം കിട്ടുന്നുണ്ട് സാംസങ് പ്രോയുണ്ട് മാം റീചാര്ജിങ്ങ് സാധാരണ നമുക്ക് പിന്നെ വണ് പോയിന്റ് ഫൈ ജീ ക്ക് നമുക്ക് മുന്നൂറ് ആണ് മുന്നൂറ് രൂപയാണ് മുന്നൂറിന് വണ് വണ് പോയിൻ്റ് ഫൈ ജി ഉണ്ട് പിന്നെ ടൂ ജി ഒക്കെ വരും ടൂ ജീ ബി ഒക്കെ വരുമ്പഴ്ത്തേനും മുന്നൂറ്റമ്പത് ഒക്കെ വരും ഏത് ടോക്ടൈം ആ അതെ അതെ അതെ അതെ

ഇ എം ഐ ഉണ്ട് ആ ഇ എം ഐ യുണ്ട് മാം ഇ എം ഐ ഉണ്ട് ഇ എം ആ മാസം ആയിരം രൂപ നമുക്ക് അക്കൗണ്ടീന്ന് പിന്നെ ചെയ്ത് പിടിച്ചോളും ആയിരം രൂപയെ ഉള്ളൂ ആ ആയിരം രൂപക്ക് നമുക്ക് ആ നോക്കിയേടെ ചെറിയ സെറ്റോ ആ അത് കുറച്ച് കോസ്റ്റ്ലീ ആണ് മാം ഒരു ഇരുപത് ഇരുപതക്കെ വരും ഇരുപത് എബൗ ഒക്കെ വരും ആ പിന്നെ നോക്കിയ നല്ലത് ആണ് മാം നല്ലതാണ് നല്ല മൊബൈലാ മ് ആ അത് കുഴപ്പം ഇല്ല അത് അത് എനിക്ക് തോന്നുന്നു രണ്ട് രണ്ടുവര്ഷത്തെ വാറണ്ടി ഉണ്ട്

ബസ്സ്റ്റാന്റിന്റെ അടുത്തായിട്ട് വരും ഓക്കെ താങ്ക് യൂ മാം ആ ഓക്കെ